നമ്മുടെ ഇന്ത്യ മാതൃരാജ്യമായ ഇന്ത്യ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാണ് ഹിന്ദി അതുപോലെ ഒക്കെ മലയാളത്തിൻ്റെ കേരളീയരുടെ ഔദ്യോഗിക ഭാഷയാണ് മാതൃഭാഷയായ മലയാളം മലയാളം മാതൃഭാഷയാണ് മലയാളം ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട ദ്രാവിഡ ഭാഷയായ തമിഴ് കന്നഡ മലയാളം ഇതെല്ലാം പ്രാചീന ദ്രാവിഡ ഭാഷയിൽ പെട്ടതാണ് ഈ തമിഴ് ഭാഷയിൽ നിന്നൂരി തിരിഞ്ഞ് വന്നതാണ് ആധുനിക മലയാളമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്